നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ വർക്കല വർക്കല ബീച്ച് കാപ്പിൽ ബീച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ നല്ലൊരു വിനോദസഞ്ചാരമുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഈ വർക്കലയിൽ അത്യാ നല്ല രീതിക്ക് പുറത്ത് നിന്നൊക്കെ വിനോദസഞ്ചാരികൾക്ക് കേരളത്തിൽ വരുന്നതും പോകുന്നതും അതത് നല്ലൊരു കൾച്ചറാണ് അതായത് നമ്മുടെ നാടിനെപ്പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലിപ്പോൾ ആളുകൾ കൂടുതലും വരുന്നത് ഇപ്പോൾ വർക്കലയിലാണ് വർക്കല ക്ലിഫ് എന്ന് പറഞ്ഞ ഒരു സംരംഭം തുടങ്ങി ടൂറിസ്റ്റുകൾക്കായുള്ള ധാരാളം മികവുറ്റ കാര്യങ്ങൾക്ക് നമ്മളുടെ സർക്കാര് ചെയ്യാൻ തുടങ്ങി പിന്നേന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയില് ഇതുപോലെ തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മെയിനായിട്ടും ഫോർട്ട് കൊച്ചി കാരണം പണ്ട് തൊട്ടുള്ള പുരാതനകാലത്തെ ഉള്ള ബ്രിട്ടീഷുകാരുടെ പഴയ ഓരോ ഓരോരോ കാര്യങ്ങളും ഓരോ ഓരോ കൾച്ചറുകളും അവരുടെ ആശയങ്ങളും ചിന്തകളും എല്ലാം തന്നെ നമുക്ക് ആ ഫോർട്ട് കൊച്ചിയിൽ കാണാൻ പറ്റും അവരുടെ പരമ്പരാഗതമായ വീടുകളും വസ്ത്രങ്ങളും ആ സമയത്തെ പഴയ വാഹനങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഈ ഈ ഫോർട്ട് കൊച്ചിയിൽ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യയില ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് നമ്മുടെ താജ്മഹൽ അതായത് എന്തുകൊണ്ടും മുംതാസിന് വേണ്ടി ഷാജഹാൻ പണിഞ്ഞു കൊടുത്തത് ഏറ്റവും ഉപരി നല്ലൊരു ഒരു വിനോദസഞ്ചാര സ്ഥലമാണ് നമ്മുടെ താജ്മഹാൽ പിന്നേന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കാശ്മീർ കാശ്മീർ കാശ്മീരല്ല നമ്മുടെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ഏറ്റവും നല്ല വിനോദസഞ്ചാരമുള്ള സ്ഥലമാണ് അവിടെ നമ്മുടെ കബൺ പാർക്ക് പിന്നെ അവിടുത്തെ ലാൽബാഗ് ഇത് അതുപോലെ തന്നെ ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പോപ്പുലർ സിറ്റിയാണ് സിറ്റി ഫോറിനേഴ്സ് കൂടുതലും ബാംഗ്ലൂരിലേക്കൊക്കെ വരുന്നുണ്ട് പിന്നീടെന്ന് പറയുന്ന സ്ഥലമാണ് മൂന്നാറ് അതായത് എപ്പോഴും ഏത് പുറത്ത് നിന്നായാലും ഇംഗ്ലണ്ടിൽ നിന്ന് പോലും ആളുകൾ മൂന്നാറിലെ കൊലുക്കുമലയിലെ സൂര്യോദയം കാണാൻ ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാറിലെ കൊലുക്കുമല